എഴുത്തുകാരെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ശരിക്കും ഭയങ്കര ഇൻട്രെസ്റ്റാണ് കാരണം ഞാൻ നന്നായിട്ട് ബുക്ക് വായിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ മലയാള ഭാഷയിലുള്ള ബുക്ക്കൾ വളരെ കുറവാണ് വായിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് ബുക്കുകളാണ് കൂടുതലും വായിക്കാറുള്ളത് അതായത് ഇങ്ങനെ നോവൽ പോലത്തെ അപ്പം എനിക്ക് പ്രിയപ്പെട്ട കുറെ എഴുത്തുകാരുണ്ട് പക്ഷേ അതിലേറ്റവും എൻ്റെ ഫേവറേറ്റായിട്ടുള്ളൊരു ഒരു എഴുത്തുകാരനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊളീൻ ഹൂവറാണ് അപ്പം ആളുടെ രണ്ട് ബുക്കാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസും ഇറ്റ് എൻ ഇറ്റ് എൻഡ്സ് വിത്ത് അസും അത് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഏറ്റോം ആദ്യം തന്നെ ബുക്കൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത് ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് പക്ഷേ ഈ റീഡിങ്ന്ന് പറഞ്ഞിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാവണേനും മുൻപ് ഞാനൊരു മലയാളം ബുക്ക് വായിച്ചിട്ടുണ്ട് ബെന്യാമീൻ്റെ ആട് ജീവിതംന്ന് പറഞ്ഞിട്ടൊള്ളോരു ബുക്ക് അത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു കഥയാണ് അപ്പം എഴുത്തും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോറിയൊക്കേം നല്ല രസോള്ളതാണ് നമുക്ക് ഒരിക്കലും ബോറടിക്കൂല്ല നമ്മൾ ഇങ്ങനെ ഇരുന്ന് വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു പേജിൽ നിർത്താമെന്ന് വിചാരിച്ചാലും അതിൻ്റെ അവസാനം എത്തുമ്പോൾ അടുതെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വളരെ അധികം ഭയങ്കര എക്സൈറ്റിങ് ആക്കുന്ന രീതിലാണവർ നിർത്തുക ഓരോ പേജിൻ്റെ അവസാനം അപ്പം നമുക്ക് അടുത്തത് വായിക്കാൻ തോന്നും അപ്പം ഒറ്റ ഇരുപ്പിൽ തന്നെ വേണമെങ്കിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്കാണ് അദ്ദേഹത്തിൻ്റെത് പിന്നെ മലയാളം അധികം വായിക്കാത്ത കൊണ്ട് എനിക്കതിലധികം പറയാനായിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞ കൊളീൻ ഹൂവറിൻറ്റെ എൻ്റെ ഫേവറേയ്റ്റായിട്ടുള്ള രണ്ട് മൂന്ന് ബുക് രണ്ട് ബുക്കാണ് ഞാൻ പറഞ്ഞ ഇറ്റ്സ് സ്റ്റാർട്സ് വിത്ത് അസും ഇറ്റ് എൻഡസ് വിത്ത് അസും അവരുടെ എഴുത്തിലൊക്കേം എനിക്ക് ഇഷ്ട്ടപ്പെട്ട ഘടകം എന്താന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോൾ ഓരോ ഫീലിംഗ്സും എഴുതുന്ന രീതി ഇപ്പമൊരു സങ്കടത്തിന് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വെറുതെ ഹാപ്പി എന്നെഴുതാണ്ട് അതിങ്ങനെ വിവരിച്ച് വർണ്ണിച്ച് പ്രകൃതിയായിട്ടൊക്കേം ഇൻറ്റർ കണക്ട് ചെയ്ത് എഴുതണത് രീതി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് അത്രേയുമാണ് എനിക്ക് എഴുത്തുകാരെ കുറിച്ച് പറയാനുള്ളത്